ഞാനൊരു ബിരിയാണീ ഓർഡർ ചെയ്യാൻ വേണ്ടിയാണ് സ്വിഗ്ഗി ആപ്പ് എടുത്തത് ഞാൻ എല്ലാ ഫുഡും ബി ഇത് ബിരിയാണിയാണെങ്കിലും എന്താണെങ്കിലും സ്വിഗ്ഗി വഴി തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് സ്വിഗ്ഗിയെടുത്ത സമയത്ത് ഇതുപോലെ ഒത്തിരി ഓഫേർസ് അതിൻ്റകത്ത് ഉണ്ടായിരുന്നു ഒത്തിരി കിഴിവുകൾ അതിൻ്റകത്ത് ഉണ്ടായിരുന്നു സ്വിഗ്ഗിയിൽ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ അഞ്ച് ഡെ ഫുഡ് ഡെലിവറി വന്നിട്ട് ഫ്രീയാണ് അങ്ങനെ കുറെ ഓഫേർസുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേനും അങ്ങനെ ഓഫറൊന്നും അധികം ഞാൻ കാണുന്നില്ല അങ്ങനെ ഞാൻ ഇതണക്ക് കൂപ്പണ്ടീ യൂണിയാ എന്നു പറയുന്നൊരു വെബ്സൈറ്റിനുള്ളിൽ നമ്മൾ കയറിയിട്ട് സ്വിഗ്ഗിയെന്നു പറഞ്ഞു സെർ സെർച്ച് ചെയ്തു നോക്കിയാൽ നമുക്ക് അതിൻ്റകത്ത് ഒത്തിരി ഓഫേർസ് കാണാൻ പറ്റും കൂപ്പൺ ഒത്തിരി കൂപ്പൺസ് നമുക്ക് അതിൻ്റകത്തു നിന്ന് കിട്ടും ഒന്ന് ഇതുപോലെ നമുക്ക് ഒരു സ്വിഗ്ഗി ഒരു സെലക്റ്റ് റസ്റ്റോറൻ്റിൽ നിന്ന് മിക്ക സെലക്ടഡ് റസ്റ്റോറന്റസുണ്ട് അതിൻ്റകത്തുനിന്ന് ഫിഫ്റ്റി പെർസെന്റജ് ഓഫ് നമുക്ക് സ്വിഗ്ഗി എക്സ്ക്ലൂസീവ് വഴി കിട്ടും അതുപോലെ ഇത് പിസ്സ പിസ്സ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പിസ്സ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നമുക്ക് പിസ്സ കിട്ടുന്നുണ്ട് അതുപോലെ പേ റ്റി എം വഴി നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് പിന്നെ ആക്സിസ് ആക്സിസ് ബാങ്കിൻ്റെ ബാങ്ക് വഴിയാണ് നമ്മൾ പേ ചെയ്യുന്നതെങ്കിൽ ഇരുനൂറ് രൂപ നമുക്ക് ഓഫ് കിട്ടുന്നുണ്ട് ഫുഡ് ഓർഡേഴ്സിൽ അതുപോലെ നമ്മൾ ചില സെലക്ടഡ് റെസ്റ്റോറൻറ്സിൽ തൗസന്റിൻ്റെ മുകളിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നൂറുരൂപയ്ക്ക് മേൾ ഓഡർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനം ഓഫ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ പേ റ്റി എം വാലറ്റ് വഴിയാണെങ്കിൽ നമുക്ക് മുന്നൂറ് രൂപ ഓഫ് കിട്ടുന്നുണ്ട് പിന്നെ നൂറ്റി ഇരുപത് രൂപ ആക്സിസ് സെയിം ആക്സിസ് ബാങ്കിൻ്റെ കാർഡു വഴി നൂറ്റി ഇരുപത് രൂപ ഓഫ് വരുന്ന ഒരു കൂപ്പണുണ്ട് അങ്ങനെ ഒത്തിരി കൂപ്പൺസ് ഈയൊരു വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഇതുവഴി ഓർഡർ ചെയ്യാൻ കിട്ടുന്നുണ്ട് അതുപോലെ ഗൂഗിൾ പേയിൽ നമുക്ക് റിവാഡ് നമുക്ക് സ്വിഗ്ഗിയിൽ ഓഫർ കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേയിൽ റിവാഡ് വഴി വരാറുണ്ട് പക്ഷെ ഇപ്പോൾ അത് വളരെ കുറവാണ് അധികം അങ്ങനെ റിവാട്സിൽ വരാറില്ല സ്വിഗ്ഗിയുടെ ഓഫേർസ് പക്ഷെ ഈയൊരു വെബ്സൈറ്റിൽ ഞാൻ കയറി നോക്കിയപ്പോഴത്തേനും ഇതിൻ്റകത്തു ഒത്തിരി ഓഫേർസ് കിടപ്പുണ്ട് നമുക്ക് പല ഒത്തിരി ക്യാഷ് ബാക്ക്സ് കിടപ്പുണ്ട് ഓഫ് ഇരുപത് പെർസെന്റജ് ഓഫ് ഫിഫ്റ്റി പെർസെന്റജ് ഓഫ് ഒക്കെ കിടപ്പുണ്ട് ഇതിൻ്റകത്ത് അതും ചെ ചില സെലക്ടഡായിട്ടുള്ള റസ്റ്റോറൻസിൽ മാത്രമേ ഉള്ളൂ അതുപോലെതന്നെ നമ്മൾ പേ ടി എം വഴിയും ഓൺലൈൻ ട്രാൻസാക്ഷൻസ് പേ ടി എം അതുപോലെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്താൽ അതുപോലെ ആക്സിസ് കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്താലൊക്കെ നമുക്ക് ഒത്തിരി ഓഫ് കാണിക്കുന്നുണ്ട് ഇതി ഈയൊരു വെബ്സൈറ്റിന്റകത്ത്